ഹലോ ഇത് മരിയാസ് ഫിഷ് മാർക്കറ്റ് ആണോ ആ ഞാനേ അവിടെ രാമൻഗിരി നിന്നാണ് വിളിക്കുന്നതേ നമുക്കേ നമ്മുടെ സ്ഥിരം നമുക്ക് ഒരു രണ്ട് കിലോ കരിമീൻ വേണമായിരുന്നു ആ ഇല്ലേ അയ്യോ അത് പറയരുത് നമുക്കേ കുറച്ച് ഗസ്റ്റുകൾ ഒക്കെ വരുന്നുണ്ട് അപ്പം പിന്നെ കരിമീൻ ഇല്ലാതെ പറ്റത്തില്ല നമ്മൾ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ കരിമീൻ ഒക്കെ കൊടുക്കേണ്ടേ ആണോ അയ്യോ ആ നോക്കിക്കേ ഞങ്ങൾക്ക് ഒരു രണ്ട് കിലോ രണ്ട് കിലോ മതി നോക്ക് അല്ലേ ഒന്നുകിൽ ആ എന്നാൽ പിന്നെ ആ എന്നാൽ മതി ഉള്ളത് എടുത്തോ ഉള്ളത് എടുത്തോ ഒന്നര എടുത്തോ പിന്നെ അത് എങ്ങനെയാണ് വെട്ടി തരുമല്ലോ നമുക്ക് അല്ലേ അയ്യോ ഒന്ന് നോക്കിക്കേ ആ സംഭവം വെട്ടി എടുക്കാൻ ശകലം പാടല്ലേ അന്നേരം നിങ്ങൾ ഒന്ന് നോക്കിക്കേ എങ്ങനെയെങ്കിലും ഒന്ന് വെട്ടിത്തരാൻ പറ്റുവാണെങ്കിൽ നല്ല കാര്യം ആണോ ആണോ ഓ നൂറ് രൂപ ആവുമോ ആ എന്നാലും ആ ആണോ ആ എന്നാലും നോക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം ഒന്ന് നോക്കിയിട്ട് ആൾ ഉണ്ടല്ലോ അല്ലേ വെട്ടി വെട്ടി കിട്ടുമല്ലോ അല്ലേ പിന്നെ ഏതാണ് അതൊന്ന് കൊടുത്തു വിടാൻ പറ്റുമല്ലോ അല്ലേ അവിടെ ഒരു പയ്യൻ ഇടയ്ക്ക് കൊണ്ടു വരുമായിരുന്നല്ലോ ഇടയ്ക്കൊരു പയ്യൻ ആണോ ആ നമ്മൾ സമയം ആയി ലേറ്റ് ആയി പോയി അല്ലേ അതുകൊണ്ട് ആയിരിക്കും അല്ലേ ആണല്ലേ ആ നിങ്ങൾ എന്തായാലും ഒന്ന് നോക്കിക്കേ ആ അവിടെ ആൾ ഉണ്ടോ എന്ന് നോക്ക് ആ വല്ലതും വിളിച്ചാൽ മതി കേട്ടോ നമ്മൾ ആരെയെങ്കിലും വിടാം ആ ആ പിന്നെ പൈസ എങ്ങനെയാണ് ഗൂഗിൾ പേ ചെയ്യാനോ അതൊ വരുന്ന പയ്യൻ ആ മതി അല്ലേ ചെയ്താൽ മതി അറുനൂറ് അല്ലേ ആ ആ ആ ആ അപ്പോൾ തൊള്ളായിരം അല്ലേ തൊള്ളായിരം തൊള്ളായിരം ആവും അല്ലേ ആ ഹാ അപ്പോൾ ആ ആ ശരി എന്നാൽ ഓക്കെ ഓക്കെ ഗൂഗിൾ പേ ചെയ്തേക്കാം ആ ശരി അപ്പോൾ ആൾ ഇല്ലെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കണേ ആ ശരി ഓക്കെ എന്നാൽ ഓക്കെ ആ